ഇഷ്ടംമാതിരി പ്രാവിശ്യം ഒരുപാട് പ്രാവിശ്യം തെറ്റ് പറ്റിയിട്ടുണ്ട് ചെയ്യുന്നതെല്ലാം ഒന്നിനും കൊള്ളാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ തയ്യിക്കുന്നത് തെറ്റിപ്പോയിട്ടുണ്ട് പലപ്പൊഴും ശ്രമിച്ചിട്ട് നടക്കാതെയും പോയിട്ടുണ്ട് അതിൽ നിന്ന് പഠിച്ച പാഠം എന്നു പറയുന്നത് ഒക്കെ തയ്യിക്കുന്നതിന് കുറേക്കൂടി ക്ഷമയും കോൺസെൻട്രേഷനും ആവശ്യമാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ അങ്ങനെ മാത്രമേ ഇത് ശരിയാവുന്ന പരിപാടിയാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു തയ്യിക്കുക എന്നു പറയുന്നതിന് അല്ലെങ്കിലൊരു വസ്ത്രം തുന്നിയെടുക്കാമെന്നു പറയുന്നത് കുറച്ച് കലാബോധം ആവശ്യമുള്ള പരിപാടിയാണ് ആർക്കും ചെയ്യാവുന്ന ഒന്നല്ല നമുക്ക് അളവുകളറിയുമായിരിക്കും വെട്ടാനറിയുമായിരിക്കും ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുമായിരിക്കും പക്ഷേ കലാപരമായിട്ട് ഒരാളുടെ ശരീരത്തിനിണങ്ങുന്ന രീതിയിൽ വസ്ത്രം ഡിസൈൻ ചെയ്യുക അത് തുന്നിയെടുക്കുകയെന്നു പറയുന്നത് തീർച്ചയായിട്ടുമൊരു കഴിവാണ് ഒരു കലയാണ് അതുള്ളവരതിന് മെനക്കെടുന്നതായിരിക്കും നല്ലതെന്നു തോന്നിയിട്ടുണ്ട് പിന്നേ അതല്ലാതെ കുറേക്കൂടിയൊക്കെ ഇപ്പം പല പ്രശ്നങ്ങൾക്ക് തുന്നിയെടുക്കുന്ന വസത്രങ്ങൾ പുറത്ത് തുന്നിയെടുക്കുന്നത് ലാഭകരമല്ല നമുക്ക് ഇത് തയ്യൽക്കൂലി നോക്കുമ്പം സ്വന്തമായിട്ട് ചെയ്യണതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും നമ്മളത്ര ഉദ്യമങ്ങൾക്ക് മുതിർന്നിട്ടുള്ളു അപ്പം നമ്മൾ തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തയ്ക്കും തെറ്റും തെറ്റിൽ നിന്ന് നമുക്ക് അതങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ നോക്കും പിന്നെ വലിയ പ്രൊജക്റ്റുകളൊന്നും ചെയ്തിട്ടില്ല ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറും ഉണ്ട് അത് ചെയ്ത് എല്ലാവർക്കുമൊക്കെ ചെയ്യാൻപറ്റും അല്ലെങ്കിൽ ബേസിക്കായിട്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണെന്ന് തോന്നിയിട്ടുമുണ്ട് പിന്നെ കൂടുതൽ ഇത് ഇങ്ങനെ എന്തു കാര്യവും അതൊരു സ്കില്ലാണ് ഇമിറ്റിംഗ് പറയുന്നതൊരു സ്കില്ലാണ് തുന്നിയെടുക്കുക തയ്ക്കുകയെന്ന് പറയുന്നത് ഇപ്പം ഏതൊരു സ്കില്ലും നമുക്ക് പെർഫെക്ഷൻ പ്രാക്റ്റീസ് മേയ്ക്സ് പെർഫെക്റ്റെന്നാണല്ലോ അത് കൂടുതൽ കൂടുതൽ നിരന്തരമായിട്ടത് ചെയ്താൽ പെർഫെക്ഷനുണ്ടാവുള്ളു കൂടുതൽ ഏകാഗ്രതയോടെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു പെർഫെക്ഷന് സമയമുള്ളവരും അല്ലെങ്കിലതിനോട് താൽപ്പര്യം ഉള്ളവരുമാണിത്തരം കാര്യങ്ങളിൽ ശ്രമിക്കുകയും മെനക്കെടുകയും ചെയ്യാറ് അങ്ങനെയുള്ളവരാണ് ചെയ്യേണ്ടത് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മളൊരു വലിയ വിജയമാണെന്ന് തോന്നിയിട്ടില്ല അങ്ങനെ അത്രമേൽ ക്ഷമ തോന്നിയിട്ടില്ല അത്രമേലതിനോട് കോൺസൻട്രേയ്റ്റ് ചെയ്തിരിക്കാനുള്ള സമയവും സാഹചര്യവും കിട്ടാറുമില്ല അതുകൊണ്ടുതന്നെ ആ ഉദ്യമം പരിപൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല പിന്നേ എന്നെങ്കിലും കാലത്ത് അങ്ങനത്തെയൊരു സ്കില്ല് സ്വന്തമാക്കണം അതിനായിട്ട് ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ബേസിക്കലി ഇത് കാണുന്നതും ചെയ്യുന്നതും ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നവരോട് നമുക്കൊരു ബഹുമാനമുണ്ട് അത് ചെയ്യാറും ഉണ്ട് അതാണ് ഇതിനേ സംബന്ധിച്ചിട്ട് നമുക്ക് പുതിയതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം അത്ര മാത്രമേ ഇക്കാര്യത്തിൽ പറയാനായിട്ട് ഉള്ളു